പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് പണ്ടത്തെ കാലത്ത് കറണ്ടും ഇതും ഒന്നും ഉണ്ടായിരുന്നില്ല ഫോണും ഒക്കെ ഇല്ലാത്ത കാലത്തായിരുന്നു എല്ലാവരും തമ്മിൽ കൂടുതൽ സഹകരണം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള വീട്ടുകാരും തമ്മിൽ സ്നേഹം ഒക്കെ കൂടുതല് അന്നത്തെ കാലത്തായിരുന്നു അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അപ്പുറത്തോ അല്ലെങ്കിൽ ഏതങ്കിലും ഒരു വീട്ടില് എല്ലാവരും കുറെ നേരം എന്തിനെങ്കിലും ഒക്കെ പറ്റി സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങള് പറഞ്ഞിട്ടും

അങ്ങന കുറെ നേരം വർത്താനം പറഞ്ഞിരിക്കും തല നോക്കിയിട്ടും അങ്ങനെ ഒക്കെ കുറെ സമയം പോവും അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു ഇന്നത്തെ പോലത്തെ അങ്ങനെ ഭക്ഷണങ്ങളൊന്നും അല്ലെങ്കിലും അന്നും അതിൻ്റെതായ രീതിക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും പിന്നെ അതൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ടും പിന്നെ അങ്ങനെ എല്ലാവരും നല്ലൊര് ഇതിലായിരുന്നു എല്ലാവരും നീന്തുക അപ്പുറത്തെ വീട്ടിലേക്കും ഇപ്പുറത്തെ വീട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരും പിന്നെ അങ്ങോട്ട് വരും അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കലും പറയലും ചോദിക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങള് വച്ച് ഉണ്ടാക്കിയാല് അങ്ങോട്ട് അപ്പുറത്തേക്ക് കൊണ്ട് കൊടുത്തിട്ടും അതിന്റ് അഭിപ്രായം പറഞ്ഞിട്ടും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നല്ലൊരു ഇതില്ല് അന്നത്തെ ഒക്കെ കാലത്ത് ഞങ്ങളെല്ലാവരും പിന്നെ നിന്നിരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാല് ഇപ്പോളത്തെ കാലത്ത് ഇപ്പം എല്ലാവരും എങ്ങനെയാണ് എന്ന് പറഞ്ഞാല് ഇപ്പം അങ്ങനെ ഒന്നും അല്ല ഇപ്പോൾ ഈ ഫോണ് കിട്ടിയത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും കുട്ടികളായാലും ആരായാലും വലിയവരായാലും കുട്ടികള് ഒക്കെ ഉള്ള സമയം ഫോണില് നോക്കി നിൽക്കുക എന്നല്ലാതെ ഇപ്പം ഒന്നും വേറെ കുട്ടികൾക്ക് പഠിക്കാൻ പഠിത്തം തന്നെ ഇപ്പോൾ പുസ്തക്കം ഒന്നും കൂടുതലിപ്പം അധിക നേരം ഒന്നും പറഞ്ഞ് അധിക നേരം ഒന്നും പുസ്തകം പോലും കുട്ടികളൊന്നും നോക്കുന്നില്ല ഇപ്പോളത്തെ കാലത്ത് വലിയവരായാലും അമ്മമാർക്കായാലും പറഞ്ഞ് കൊടുക്കാൻ ഒഴിവില്ല ഈ ഫോണില് നോക്കി ഇങ്ങനെ സമയം പോകും കുട്ടികളാണെങ്കിൽ ഒക്കെ ഫോണിലാണ് ഇപ്പം ഇത് കണ്ണിനൊക്കെ എത്ര കേടാണെന്ന് പറഞ്ഞാലും കുട്ടികളും ഒന്നും കേൾക്കില്ല വലിയവരും അങ്ങനെ തന്നെ കാണിക്കുന്നത് അച്ഛനും അമ്മയും ഒക്കെ ഇത് തന്നെയല്ലേ കാണിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ അത് അത് കണ്ടിട്ട് തന്നെ അല്ലേ കുട്ടികളും പഠിക്കുന്നത് അപ്പം എല്ലാവരും അന്ന് ഇപ്പോളത്തെ കാലത്തൊക്കെ ഇപ്പോളത്തേത് ആണ് പണ്ടത്തേതെന്ന് പണ്ടത്തേതെന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു ഇതും ഇല്ലല്ലോ ഒക്കെ നല്ല ഇതു നല്ല ആർക്കും ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ പറഞ്ഞാല് ഇതല്ലേ എല്ലാവർക്കും ആർക്കും ഒന്നും മിണ്ടാൻ പോലും സമയമില്ല ആരെ നോക്കിയാലും ഒരാള് ഒരു റൂമില് ഒരാൾ റൂമില് അങ്ങനെ ഫോണിൽ തോണ്ടിയിരിക്കുകയാണ് അല്ലാതെ അതാണ് ഇപ്പോളത്തേത്